എൻ്റെ ഫാമിലിയിൽ ഉപ്പ ഉമ്മ അനിയത്തി മൂന്നനിയന്മാർ ഇച്ഛ ആണുള്ളത് ഉപ്പ ഉപ്പ ഉമ്മാവും വീട്ടിൽ തന്നെ ഉണ്ട് പിന്നേ ഒരിച്ഛ ഉള്ളത് ദുബെയിൽ ദുബെയിൽ പോയിട്ട് ഏകദേശം ഒരു കൊല്ലാമായി പിന്നെ ഇങ്ങനെ തട്ടി മുട്ടി ജീവിക്കുന്ന ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പിന്നെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി പിന്നെ ചെങ്ങയിമാരുണ്ടേനെങ്ക് ചെങ്ങയിമാര് അവിടെ ഇവിടെ ആയിട്ട് കുറേ ഉണ്ട് ഓരോന്ന് പഠിക്കാൻ പോകുന്നിടത്തും പണിക്ക് ജെസ്റ്റ് പണിക്ക് പോകുന്ന ആ അതിൻ്റെ അടുത്തും അതല്ലാതെ ഇങ്ങനെ നാട്ടിലത്തെ ചങ്ങാതിമാരായിട്ട് അങ്ങനെ കുറെ ഉണ്ട് അങ്ങനത്തെ ഒരു കു റേ ആത്യാവഴ്യം ചങ്ങാതിരെല്ലാം ഉണ്ട് അങ്ങനെ ഒരു അജ്ജ്വൽ പറഞ്ഞിട്ടൊരു ചങ്ങാതി ഉണ്ട് എനിക്ക് ആളൊരു കാട്ടു കോഴി ഒന് ഒരു ബുദ്ധി ഇല്ലായ്മയും ബുദ്ധി ഇല്ലെങ്കു ഉള്ളത് പോലെയാണ് ഓൻ്റെ കളിയെല്ലം അങ്ങനത്തെ ഒരു ചങ്ങാതി ആണ് ഓന് പിന്നെ കുടുംബം എപ്പോഴും ഇങ്ങനേ ചെറിയ ചെറിയ പ്രശ്നമെല്ലാം ഉണ്ടാങ്കു ഹാപ്പി ഫാമിലി ഒരു ചെറിയ അനിയൻ പഠിക്കുന്ന മൂന്നാം ക്ളാസ്സ് പിന്നെ ഒരുത്തൻ ഏഴിയിലും പിന്നൊരുത്തൻ അഞ്ചിലും പിന്നെ ഇച്ഛ ഉണ്ട് ഗൾഫിൽ മൊബൈൽ ഷോപ്പില് വർക്ക് ചെയ്യുന്നു ഉപ്പ കുറച്ചായി ഇങ്ങനെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒര് ഹേർട് ബ്ലോക്കിൻ്റെ പ്രോബ്ലം വന്ന് അങ്ങനെ അവിടെ വീട്ടിലുണ്ട് പിന്നെ ഉമ്മ ഉമ്മ ഹൗസ് വൈഫ്ഫ് അങ്ങനെ ഇങ്ങനെ പോകുന്നു സുഹൃത്തുക്കൾ പിന്നെ ഡേയ്ലി ക്ലാസ്സിന് പോകുന്ന ഒര് ചങ്ങാതിൻ്റ ഒക്കെയാണ് വണ്ടിയിൽ കൂടി ചങ്ങാതി ഇങ്ങ്ന്ന് ഡേയ്ലിയേ ഞാൻ നേരത്തെ എത്ര നേരത്തെ റെഡി ആയെങ്കിൽ ഓൻ എന്നെ ഡേയ്ലി വൈകിപ്പിക്കും ഞാൻ ഒരു പത്ത് മണിക്ക് റെഡി ആയിട്ട് വീട്ടിൽ എത്തിയെങ്കിൽ ഒരു പതിനൊന്ന് പത്രണ്ട് മണി വരെ ഓൻ്റെ അവിടെ വെയിറ്റാക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെയുള്ള ഭയങ്കര അൽമ്പാ ഓനെ ക്കൊണ്ട് പേര് മൊയ്ദൂന്ന് പിന്നെ ഒരു ചങ്ങാതി ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നിച്ചു പഠിക്കുന്ന ഇൻസ്റ്റിറ്റൂട്ടില് കാദർ എൽറ്റ് ആള് നല്ല കളിക്കുന്നൊരു പ്ലയെർ ഫുട്ബോൾ പ്ലയെർ ആണ് മാത്രം ഓന് ഇങ്ങന്നെ ഇങ്ങനേ ഒരു സൈഡായ്ട്ട് നമ്മളെ ചാറാക്കാനല്ല ഭയങ്കര ഉഷാറ് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കഥയിടാനും ഭയങ്കര വായ്ത്താളം ഇങ്ങനെ ഈ പെണ്ണ്ങ്ങളുടെ മുമ്പ് നിന്ന് ആളാക്കലും ഷോവും അങ്ങത്തെല്ലാന്ന് ഓൻ്റെ ഹോബീ ഇത് അജ്മൽ പിന്നെ അജ്മൽ പറഞ്ഞ ഒരു ചങ്ങാതി ഉണ്ടെനിക്ക് ഓനെ ഞാനിവിടെ ഇൻസിറ്റിറ്റൂട്ടില് വന്നിട്ട് ഫസ്റ്റ് ടൈം കാദറിൻ്റെ ഒന്നിച്ച് കാണ്ന്നെയാണ് ഓയി കണ്ടപ്പാടീന ആളെ കാണുമ്പോൾ ഒരു ഭയങ്കര ഷോ ആക്കിയിട്ടിങ്ങനെ നടക്കുന്നു ഒരു ഇതായിൻക്കുണ്ടായിനെ അത്രയും കുർച്ച് കഴിഞ്ഞപ്പം ഓൻ്റെ ഒരു വൈബ് മനസിലായത് നമ്മളൊന്നിച്ചിട്ട് തന്നെ ഉണ്ടാകുന്നത്തൊര് വൈബ്ബ് നല്ല സെറ്റ് വൈബാന്ന് ഇങ്ങനേ വായി നോക്കാൻ എല്ലാത്തിനായിട്ട് ഒക്കെന്നെ ഉണ്ടാകും സിഗരറ്റ് വലിക്ക സിഗരെറ്റ് വലി അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കള്ളത്തരൊമല്ല ഉണ്ട് ഓനിക്ക് ഇങ്ങനേ പോവും ഡേയ്ലി ആരെങ്കും ഒരാൾ നേരത്ത എത്തിയെങ്കിൽ പിന്നെ മൂന്നാമത് ഒരുത്തനെ വേയ്റ്റാക്കീട്ട് അവിടെ താഴെ നിൽക്കലാണ് അങ്ങനെ പിന്നെ ക്ലാസ്സിൽ കയറാൻ അതിലും വഴും അങ്ങനെ അങ്ങിനേ ഉള്ള ചങ്ങാതിമാരുള്ളത് കുടുംബക്കാർ പിന്നെ കുടുംബം എന്ന് പറയുമ്പോൾ ഈൻ്റട്ക്ക് ഉപ്പാൻ്റെ ഒരു ബ്ലോക്കിൻ്റെ ഒപ്പേറഷൻ കഴിഞ്ഞ് അങ്ങിനെ ഇങ്ങനെ പോകുന്നു പിന്നെ ഇപ്പോൾ കണ്ണിൻ്റെ എന്തോ കാഴ്ചക്കുറവ് പറഞ്ഞിട്ട് അതിൻ്റെ തിമിരത്തിൻ്റെ ഒരു ഓപ്പ്റേഷന് പറഞ്ഞിട്ടുണ്ട്

പിന്നെ നാട്ടിൽ രണ്ട് ചങ്ങാതിമാരുണ്ട് ഇവർ രണ്ടാളും ഇങ്ങന്നെയാണ് വെറും വായകൾ ഓ ഒന്നിനും കൊള്ളില്ല മാത്രം മംഗലാരം പഠിക്കാനാർഞ്ഞിട്ട് പോകുന്നു എന്ത് കഥയെന്നറിയില്ല ഇങ്ങനേ അടവിൻ്റെ ഭായിയോക്കുഞ്ഞു തല്ലാക്ക് ഇങ്ങത്തെല്ലാന്ന് പരിപാടി ഇറ്റക്കിടക്ക് അൻ്റെക്ക ഉണ്ടാകും എൻ്റകിണ്ടാഅട്ത്തേക്കട്ത്തേക്ക് ഒക്കന്നെ ഉണ്ടാവും മാത്രോ ഓരെ ഭയങ്കര നല്ല വൈബ് പിള്ളേരാന്ന് എല്ലാത്തിനും ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഒരു ചങ്ങാതി ഉണ്ട് നവാസ് എന്ന് പറഞ്ഞിട്ട് ആൾ ഇത്തിരി ഡേയ്ഞ്ചർ ആണ് ഭയങ്കര എന്ത് പ്രെശ്നുണ്ടു തല്ലിനു മാത്രമായിട്ട് നിൽക്കുന്നൊരു ചങ്ങാതി ഓന് എവിടെ പ്രശ്നം ഉണ്ടാവും വെറുതേ പോയി തല്ലാക്ക തല്ലാക്കാം എന്ന് മാത്രം പറഞ്ഞോണ്ടിക്കന്ന ഒരു ചങ്ങാതി ആണ് അത് പിന്നേ കാസ് ചെങ്ങയ് ചങ്ങാതിമാർ പിന്ന പിന്നെ മൊയ്ദൂ പറഞ്ഞ ഒരു ചങ്ങാതി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടിണ്ടായീന് ഓനാള് ഇങ്ങന്നെ ഈ പാപ്പൊ ആൾ ഒരു പാവമാണ് എന്തുല്ലെങ്കു ഉള്ളത് ഉള്ളതുപോലെ പറയും ഒന്തും മൻസ്സിൽ വച്ച് നടക്കില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് അവൻ്റെ എല്ലാ ഓപ്പണായിട്ട് തന്നെ പറയും ഇങ്ങനെ പെണ്ണ് ആടെ ഒരു പെണ്ണുണ്ടോ ആണുണ്ടോ എന്നൊന്നും നോക്കില്ല ടീച്ചറുണ്ടോ ഉപ്പ ഉണ്ടോ ഉമ്മയുണ്ടോ അങ്ങനത്തെ ഒന്നും ഒരു മൈൻഡ് ഇല്ലാതെ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു മൈൻഡാണ് അവൻ്റെ പച്ചക്ക് തെറി ആണങ്കിൽ തെറി നേരെ ഉള്ളതാണെങ്കിൽ നേരെ ഉള്ള അങ്ങനെ അല്ല ഓപ്പണായി പറയുന്നൊരു കൂട്ടുകാരൻ അങ്ങനെ ഒരുത്തൻ ഉണ്ട് പിന്നാഷിക്ക്ൽത്തെ ഒരു കൂട്ടുകാരൻ ഇ ഇൻസ്റ്റിറ്റൂട്ടിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ചങ്ങാതിയുണ്ട് ആഷിക്കെൽറ്റ് ഫസ്റ്റ് കാണുമുനെ എജ്ജ് ജാട ആയിയ്ക്ക അങ്ങനത്തെ ഇങ്ങനത്തെയൊട വിജാരിച്ച് മൊത്തം ഒക്കെ കൂടിയപ്പോൾ അറിഞ്ഞത് ജാഡയൊന്നു ഇല്ല നല്ല ഫ്രെണ്ട്ഷിപ്പിനുള്ളൊരു സെറ്റ് സെറ്റ് വൈബുണ്ട് അത്ര വലിയ കോഴിയാണ് ആൾ ഡേയ്ലി പെണ്ണുങ്ങളെ നടൂൽ ഇരിക്കണം അങ്ങത്തൊരിതില്ലാതു ക്ലാസ്സ് സെറ്റായില്ല ഇവിടെ വന്നതിനു ശേഷം ഒരു ലൗ എല്ലാം സെറ്റായി എന്നിട്ട് ഓന് ഇപ്പം അങ്ങനെ ഇങ്ങനെ പോകുന്നു ആ ലൗ ഇപ്പോൾ ഉണ്ട് പൊട്ടീന എന്ത് കഥയൊന്നും അറിയില്ല ഓൻ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ബാക്കിൽ പോകുന്നോണ്ട് ഒക്കെ ഓള് വിട്ടിട്ട് പോയിനോ എന്ത് കഥയൊന്നും അറിയില്ല പാപ്പ ചങ്ങാതി ഏന്തുല്ലാണ്ടു ഈൻ്റെടക്ക് ലേയ്സ്സിൻ്റെ ടെസ്റ്റുണ്ടായീനു ഒങ്ക്ക് അതിൽ മൂന്ന് കാറിൻ്റെ റോഡ് ടെസ്റ്റിന് സീറ്റ് ബെൽറ്റ് ടൈറ്റ് പൊട്ടി അതിൻ്റെ ബേജാറ് പറഞ്ഞോണ്ടാരുന്നു ഒരസം അതുപോലെ പിന്നെ ഒരുത്തനുണ്ട് അഫ്സൽ എനിക്ക് ഓനെ ഗെയിമ് കളിച്ചിട്ടാണ് പര്ജെയായതാന്ന് ഗെയിം കളിച്ച് ഒരു അഞ്ചു കൊല്ലം നമ്മൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഓൺലൈൻ ഗെയിമ് കളിച്ചോണ്ടായി അതിൽ പര്ജ്യായിട്ട് ഇങ്ങനെ ഭയങ്കര സൗഹൃദമായി ഫ്രെണ്ട്ഷിപ്പായി പിന്നെ ഒന്നിച്ചിട്ട് കുറച്ച് മൂവിക്കെല്ലാം പോയി അങ്ങനെ ഇങ്ങനെ പിന്നോൻ്റെ ഒരു ലൈസ്സിൻ്റെ ടെസ്റ്റുണ്ടായി അതിൻ്റെ ഒരു മൂന്ന് തവണ പോയിട്ടാണ് ഓന്ക്ക് സ്കൂട്ടറിൻ്റെ എട്ട് കിട്ടിയത് അത് ഭയങ്കര ഒരു കോമഡി കഥയായി പോയി പിന്നെ ഇയിൻ്റട്ക്കൂടെ വിൾക്കും ഇടക്കിടയ്ക്ക് രാത്രിയൊക്കെ വിളിക്കും പിന്നെ അതി കുശലാ അന്വേഷണങ്ങളൊക്കെ പറയും പിന്നെ ഇങ്ങനെ വിളിക്കും എന്തെങ്കും ആവശ്യം ഉണ്ടാകുമ്പോൾ വല്ലൊ വിൾക്കും ഈൻ്റെ ഇടയ്ക്ക് ജെസ്റ്റ് ആക്സിഡൻറ് ആയിട്ട് കാല് കാല് പ്ലാസ്റ്ററിട്ടിട്ടുണ്ടായി ഇപ്പോൾ നേരെ ആയിട്ട് കോളജിൽ പോകാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത് പിന്നാ അവനിപ്പോൾ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു ചട്ടംചാലികോ എമ്മേസ്സി പറഞ്ഞ ഒരു കോളേജ് ഉണ്ട് ആർട്സ് എമ്മേസ്സി ആർട്സ് ആൻഡ് സയൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഞാൻ ആടെ പഠിക്കുന്നു പിന്നെ ഗെയിം അതുപോലെ ഗെയിമ് കളിച്ചിട്ട് പിന്നെ രണ്ടു മൂന്നു ചങ്ങാതിമാരെ കിട്ടീന് ഒന്ന് ദീക്ഷിത് എന്ന് പറയുന്നത് ഓന് കൾ ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് എന്തോ നേവീൻ്റെ ഇത് കോഴ്സ് ത് ഒരു കോഴ്സ്സ് ട്രൈ ചെയ്യുന്നു പിന്നെ റെയ്സർറ്റൊ എന്ന് ഒരുത്തനുണ്ടായി ഓൻ ഐ ഏ എസ്സിൻ്റെ ഒര് കോച്ചിങ്ങിൻ്റെ ഇതിന് പോകുന്നുണ്ട് പിന്നേ നൗഫലാർട്ടൊരു ഫ്രെണ്ടുണ്ടായിന് ഓൻ ഇപ്പം മംഗലാപുരം ഏതോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നുണ്ട് എന്താണ് പഠിക്കുന്നത് അറിയില്ല ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇത് ആ ഇത്ര തന്നെ ഇത്ര തന്നെ ചങ്ങാതിമാറെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ചങ്ങാതിമാർ ഇനിയും ഉണ്ട് ഇല്ല എന്നല്ല അത്രോ എല്ലാരേം ഇപ്പം പെട്ടെന്ന് പറയാകയിനില്ല